സാഹിത്യത്തിലും കവിതകളും മറ്റ് കലാവിശേഷങ്ങളെ കുറിച്ചും മലയാള ഭാഷ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് കാരണം ഏറ്റവും നല്ല സാഹിത്യരചനകളും കവിതകളും ഉള്ളത് മലയാളത്തിലാണ് നമ്മുടെ എല്ലാ സാഹിത്യ ആശാന്മാരും മലയാള മലയാള ഭാഷയ്ക്ക് അവരുടേതായ രീതിയിൽ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് അതിൽ എടുത്ത് പറയേണ്ട നിരവധി സാഹിത്യകാരൻമാരുണ്ട് ആശാനുള്ളൂർ വള്ളത്തോൾ എഴുത്തച്ഛൻ സുഗതകുമാരി ഹൃദയകുമാരി ബാലേന്ദ്രൻ ചുള്ളിക്കാട് മുരുകൻ കാട്ടാക്കട ന് എസ് കേ പൊറ്റക്കാട് അങ്ങനെ ഒരുപാട് പേരുണ്ട് നമുക്ക് പറയേണ്ടിവന്നാൽ ഒരുപാട് പേരുകളുണ്ട് പറയാനായിട്ട് ഞാൻ ഒരുപടൊന്നും പറയുന്നില്ല എങ്കിലും എന്നെക്കൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അറിയാമെന്നുള്ളതൊക്കെ ഞാൻ പറയുകയാണ് അതൊക്കെ ഇവരൊക്കെ നല്ല രീതിയിലൊക്കെ കവിതകളൊക്കെ അവതരിപ്പിക്കുന്നവരാണ് നന്നായിട്ട് കവിത പറയുന്നവരാണ് മലയാളത്തിൽ വരുന്ന സാഹിത്യ കൃതികളിൽകൂടിയാണ് നമ്മുടെ മലയാള ഭാഷ ഇത്രയും വിപിലമായതും വികസിച്ചതും അവരുടേതായ മലയാള ഭാഷ എല്ലാ സാഹിത്യത്തിലും കവിതയും വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതു മലയാളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനായിട്ട് ഉണ്ട് നല്ലതാണ് മലയാളം മലയാള കവിതകൾ ഏറ്റവും നല്ല അതാ